ഞാനിപ്പോൾ ഇതേ ഇതുവരെ പാചക വിധിയെന്ന് പറഞ്ഞ് പരീക്ഷിച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടും ഞങ്ങൾ ഒരു പരീക്ഷിച്ച് നോക്കാറുള്ളതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ബിരിയാണിയാണ് അപ്പോൾ സാധാരണ ബിരിയാണിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ എല്ലാവരും ഉണ്ടാക്കുന്ന പോലുള്ളൊരു ബിരിയാണിയല്ല ഞാൻ പരീക്ഷിച്ച് നോക്കിയത് അതായത് തലശ്ശേരി ദം ബിരിയാണിയില്ലേ അതാണ് ഞാൻ പരീക്ഷിച്ച് നോക്കിയത് അപ്പോൾ അത് നല്ലൊരനുഭവമായിരുന്നു കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതുവരെ കഴിക്കാത്തൊരു ബിരിയാണിയും പിന്നെ ആരും എന്താ പറയുക തലശ്ശേരിയിലെ ഒരു ദം ബിരിയാണി അതാണ് മെയിനായിട്ട് ഞാൻ നോക്കിയത് അപ്പോൾ അതിൽ നിന്ന് പഠിച്ചൊരു പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുണ്ടാക്കുന്ന പോലെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ലയെന്നാണുള്ളത് സത്യം കാരണം നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ബിരിയാണിയുണ്ടാക്കൽ കാരണം അതിന് അവരുടേതായ ശൈലികളും കാര്യങ്ങളുമൊക്കെ അതിന് ഉണ്ടാകും ഇപ്പം നമുക്കത് ഒത്തു പോകില്ലയെന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ അപ്പം അത് ഇതിൻ്റെയൊരു മെയ്നായിട്ടുള്ളൊരു വെല്ലുവിളിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു എനിക്ക് കാരണം ഞാനുണ്ടാക്കിയത് അത്ര ശരിയായില്ല അതാണതിൻ്റെയൊരു പ്രശ്നമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അപ്പം കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ ഇപ്പം അവരുടെ അടുത്ത് തന്നെ പോയിട്ട് ഇല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ നോക്കി എല്ലാ കാര്യങ്ങളും ഒക്കെ പഠിക്കേണ്ടി വരും അപ്പം അത് ഇനി മുതൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും